ഓരോ നാടും പുരോഗമിക്കുന്നത് വ്യവസായത്തിലൂടെയാണ് ആ വ്യവസായത്തിന് അടിസ്ഥാനമായിട്ട് വേണ്ടത് കൃഷിയാണ് നമ്മുടെ നാട് എത്ര ശാസ്ത്രീയമായിട്ട് പുരോഗമിച്ചാലും കൃഷി മെച്ചപ്പെടുന്നില്ല എങ്കിൽ നാം മനുഷ്യനെ സംബന്ധിച്ച് അത് ഒരു തരത്തിലും പ്രയോജനകരമാകില്ല അതിനടിസ്ഥാനപരമായിട്ടുള്ള കൃഷി വികസനമാണ് നമുക്കേറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഓരോ കൃഷിക്കും അതിൻ്റേതായ കൃഷി രീതികളുണ്ട് അത് പാരമ്പര്യമായിട്ട് പകർന്നുകിട്ടിയ രീതിയിലൂടെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് അതിന് ശാസ്ത്രീയമായിട്ട് നമ്മൾ പരിഷ്കരിച്ചെടുക്കുന്നു അതിന് പുതിയ രീതിയിൽ പുതിയ വിളവുകളുണ്ടാകാൻ കൂടുതൽ വിളവുകൾ ലഭ്യമാക്കാൻ നമ്മളതിന് പരിശ്രമിക്കുന്നു ആ വിളവിൻ്റെ കൂടുതൽ ലഭ്യത ഉണ്ടാകണമെങ്കിൽ കൃഷി നല്ല രീതിയിൽ കൃഷിയെ അറിഞ്ഞിരിക്കണം മണ്ണിനെ അറിയണം കാലാവസ്ഥയെ അറിയണം ആ കാലാവസ്ഥയ്ക്കനുയോജ്യമായുള്ള കൃഷി രീതികളും മെനഞ്ഞെടുക്കണം അതിനനുയോജ്യമായിട്ട് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള കൃഷികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അത് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള അറിവിലൂടെ അത് സാധ്യമാവും അത് കേരളത്തിൻ്റെ തനതായ ഒരു കൃഷി രീതികളുണ്ട് ആ കൃഷി രീതികൾ ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമേ സാധാരണ ഗതിയിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കത്തുള്ളു മറ്റ് അന്യസംസ്ഥാനക്കാരെയാണ് നമ്മൾ പലതിനും ഇവിടെ ആശ്രയിക്കുന്നത് പക്ഷേ ആ അന്യസംസ്ഥാന സംസ്ഥാനക്കാരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ ഒന്നും അവർക്കറിഞ്ഞുകൂടാ നമ്മുടെ കൃഷിരീതികളും അവർക്കറിയാൻ മേല എന്തൊക്കെയാണ് നമ്മൾ കൃഷിയിറക്കുന്നതെന്നും അവർക്കറിഞ്ഞുകൂടാ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ ആ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ അത് പറഞ്ഞുകൊടുക്കുന്നത് കേൾക്കുന്ന അതേ രീതിയിൽ അവരുടേതായ ഒരു സംഭാവനയും കൂടി അതിന്റെ അകത്തുണ്ടാകണം ആ അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃഷിപ്പണികൾ നല്ല രീതിയിൽ മുന്നോട്ടുകൊണ്ടുപോവാൻ സാധിക്കുകയുളളൂ നമ്മൾ ഒരാളോടൊരു വാഴ കുഴിച്ചുവെക്കാൻ പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും അതറിയാവുന്ന രീതിയിൽ ആ തനതായ ആ പ്രാഗത്ഭ്യവും ഉപയോഗിച്ചുകൊണ്ട് വേണം അതു ചെയ്യാൻ അന്യസംസ്ഥാനക്കാരെ സംബന്ധിച്ച് അവർക്കതിനുള്ള പ്രാഗത്ഭ്യം ലഭ്യമല്ല അവർ അവരുടെതായ രീതിയിലാണത് ചെയ്യുന്നത് ഇപ്പം കിളയ്ക്കാനാണെങ്കിലും മണ്ണ് ഒരുക്കുന്ന നിലമൊരുക്കുന്ന രീതിയാണെങ്കിലും എല്ലാം അവർ അവരുടെ രീതി വേറെ നമ്മുടെ നാടൻ രീതികൾ വേറെ നമ്മുടെ കൃഷിയെ സംബന്ധിച്ചെടുത്തോളം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ആ കൃഷി എന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് പഠിക്കണം ആ പഠിച്ചിട്ട് അതനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളു അതു മികവോടെ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ നാട്ടുകാർ അതു ചെയ്താൽ മാത്രമേ കൃഷി അറിയാവുന്നവർ ചെയ്താൽ മാത്രമേ അത് മെച്ചമുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ആകത്തുള്ളു അന്യസംസ്ഥാനക്കാരെ സംബന്ധിച്ച് അവരെ ഇത് പറഞ്ഞു മനസ്സിലാക്കി ചെയ്യിക്കുകയെന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ തൊഴിലാളികളുടെ ലഭ്യതക്കുറവനുസരിച്ച് നമ്മൾക്ക് മറ്റു സംസ്ഥാനമൊക്കെ തൊഴിലാളികളെ ആശ്രയിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അവരെ കൂടുതൽ നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ കൃഷിയെ നമ്മുടെ കാർഷിക ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാനവരെ പഠിപ്പിക്കണം നമ്മുടെ തൂമ്പയും മൺവെട്ടിയും മറ്റും ഉപയോഗിക്കാനവർക്ക് ഉള്ള പ്രാഗത്ഭ്യം വളരെ കുറവാണ് കാരണം അവരുടെ നാട്ടിലെ രീതികളും മറ്റും നോക്കുമ്പോൾ അത് വ്യത്യാസമാണ് അതുകൊണ്ട് ആ രീതിയിലേക്കവരെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം ആ പരിശീലിപ്പിച്ചെടുത്ത് അവരെ ഈ കൃഷി രീതികൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ഞാറ് നടുന്ന രീതിയാണെങ്കിലും നമ്മുടെ മലനാടുകളിലും അതായത് മരച്ചീനിയാകട്ടെ വാഴയാകട്ടെ മറ്റ് കപ്പ കാച്ചിൽ അതുപോലെയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നതിന് അവരെ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്കും കൃഷി മുന്നോട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോവാൻ നല്ല വിളവും ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളു ഒരോ വ്യവസായം അടിസ്ഥാനത്തിന് വ്യവസായം കൃഷി അടിസ്ഥാനമാക്കിയാണ് വ്യവസായങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പം റബ്ബറിനെ സംബന്ധിച്ചെടുത്തോളം പിന്നെ റബ്ബർ അധിഷ്ഠിതമായ അനേകം വ്യവസായങ്ങളുണ്ട് ആ റബ്ബറ് പ്രകൃതിദത്തമായ റബ്ബറ് മറ്റ് സിന്തറ്റിക് റബ്ബറിൻ്റെ കൂടെ ചേർത്തുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ റബ്ബറ് നമ്മളെ നാട്ടുകാർക്ക് മാത്രമേ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും റബ്ബർ കൃഷിയുള്ളത് അന്യ സംസ്ഥനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനെപ്പറ്റി ഗ്രാഹ്യമില്ല അവരെ നമ്മൾ ഇത് പരിശീലിപ്പിച്ചെടുക്കുകയെന്നുള്ളത് ഒരു കാര്യമാണ് ആ പരിശീലനം നല്ല രീതിയിൽ പരിശീലനം കൊടുത്താൽ ഒരുപക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല കുറച്ച് കർഷകത്തൊഴിലാളികളെ അവരിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാവും ആ കൃഷിരീതി മുന്നോട്ടുകൊണ്ടുപോയി നല്ല രീതിയിൽ കൃഷി ചെയ്ത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ആ കൃഷി അറിയാവുന്നവരായിരിക്കണം ഇവരെ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നത്